ഗ്രഹണത്തെക്കുറിച്ച് പറയുകണെന്നുണ്ടെങ്കില് എനിക്കേറ്റവും ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണത് അതേപോലെ ഈ കോമെറ്റ് കാണുക അങ്ങനെ ആകാശത്ത് വ്യത്യസ്തമായ കാര്യങ്ങള് കാണുകയാണെന്നു പറഞ്ഞാലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഞാന് ഏഴാം ക്ലാസ്സില് പഠിക്കുന്ന ടൈമിലൊരു ഗ്രഹണമുണ്ടെന്നു പറഞ്ഞിട്ട് ടീച്ചര് ഞങ്ങള്ക്ക് എന്താ പറയുക എ ഫോറൊക്കെ എ ഫോറല്ല ചാർട്ട് പേപ്പര് കട്ട് ചെയ്ത് കണ്ണടയൊക്കെ ഉണ്ടാക്കിത്തന്നിട്ടുണ്ട് എന്നിട്ട് ഇത് വച്ച് കാണണമെന്ന് പറഞ്ഞിട്ട് ആ സംഭവം ഞാൻ ഇന്നും എടുത്തുവച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ സംഭവങ്ങളുണ്ടാകുമ്പോള് കാണാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തുവച്ചിട്ടുണ്ട് അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ അത് വച്ചിട്ട് കണ്ടിട്ടുണ്ട് എന്താണ് പറയുക അത് ഒരു നല്ല രസമാണ് ഞാൻ കൊണ്ടുപോയി എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ കാണിച്ചുകൊടുക്കലുണ്ട് ഞങ്ങളതുപോലെ ഉറക്കം ഒഴിവാക്കി ഇപ്പോള് അടുത്തൊരു സംഭവമുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഉറക്കമൊഴിവാക്കി ഇരുന്നിട്ടുണ്ട് ഒരു മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കില് ഞങ്ങള് ഒരു ഉൽക്ക മഴ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണാനിരുന്നിട്ട് സംഭവം കാണുന്നില്ല ചിലപ്പോള് സ്പോട്ടിങ്ങ് കിട്ടുന്നില്ല പക്ഷേ ഞങ്ങള് എന്നിട്ട് ആ സമയത്തുതന്നെ ഫോണുകളിലക്കെ അടിച്ചിട്ടൊക്കെ ഞങ്ങള് സെർച്ച് ചെയ്ത് കാണാൻ ശ്രമിക്കും എന്താണു പറയുക അത് നല്ല രസമാണ് ആകാശത്ത് നമ്മള് നാടുകളില് കാണാത്ത വ്യത്യസ്തമായ സംഭവങ്ങള് ഉണ്ടാവുക എന്നു പറയുമ്പോള് അത് അത് കാണുക എന്നുള്ളൊരിതാണ് നമ്മള് സ്പേസും ഭൂമി അങ്ങനെയുള്ള ഗ്രഹങ്ങള് അതൊക്കെയൊരു രസമാണല്ലോ ആകാശത്തില് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു വ്യത്യസ്തമാണല്ലോ അപ്പോള് അതൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോള് അതിൽ നിന്ന് വാൽനക്ഷത്രങ്ങള് അതേപോലെ ഓരോ സംഭവങ്ങൾ കാണാനും അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുമൊക്കെ നല്ല താൽപ്പര്യമാണ് അത് ഒരു ഭംഗിയാണ് അതൊരു കാണുന്നതൊരു രസമാണ് അതുകൊണ്ടുതന്നെയാണ് കൂടുതല് ചർച്ചയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടക്കാനുണ്ടെന്നു കാണുമ്പോള് നമ്മളത് ഡേറ്റ് നോട്ട് ചെയ്യലും അത് സംഭവം കാണാറൊക്കെയുണ്ട്